ആ തീർച്ചയായും ആളുകൾ ഇപ്പോൾ പട്ടണങ്ങളിൽ ജീവിക്കുന്നതുകൊണ്ട് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പം ആ ഒരു പ്രശ്നം നോക്കാണ് വെച്ചാൽ ഒരു പ്രശ്നം എന്നു പറയുമ്പോൾ യുവതലമുറയിൽപ്പെട്ട ആൾക്കാർക്ക് അവർക്ക് അനുയോജ്യമായ ജീവിത പങ്കാളിയെ കിട്ടാൻ ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് പറയണ തന്നെയാണ് ഇപ്പോ നോക്കാണ് വെച്ചാൽ ഇപ്പം പട്ടണങ്ങളിലെ ജീവിതം എന്നു പറയുമ്പോൾ നമുക്ക് എന്താ പറയുക ആ ഒരു വീടിനുള്ളിൽ മാത്രം ഒതുങ്ങി കൂടുന്നൊരു ജീവിതമായിരിക്കും ചുറ്റുമുള്ള ആൾക്കാരെയോ ആരും തിരിച്ച് ആരെയും അറിയില്ല അതുപോലെ ആരുമായിട്ടും സംസാരിക്കാൻ ഒരു സമയം കണ്ടെത്താറില്ല എല്ലാവരും ബിസി ഷെഡ്യുളാണ് എല്ലാരും ജോലിക്കു പോകുന്നു രാവിലെ റെഡിയാവുന്നു പോകുന്നു വൈകുന്നേരം വരുന്നു പിന്നീട് രാത്രി ഉറങ്ങുന്നു പിന്നെയും ആ ഒരു ഷെഡ്യുൾ ആവർത്തിക്കുന്നു ഒഴിവു സമയം കിട്ടുകാൻ പോലും പുറത്തു പോയി മറ്റും അങ്ങനെയാണ് ചുറ്റുള്ള അയൽ അയൽവാസികളോടോ ആരോടും സമ്പർക്കം മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല അങ്ങനെ ചുറ്റുള്ള ചുറ്റും ജീവിക്കുന്ന ആരാണെന്നു പോലും അറിയാത്തൊരു ശെരിക്കും പട്ടണങ്ങളിലൊക്കെ കാഴ്ചകൾ അങ്ങനെയാണ് അങ്ങനെ വരുന്ന സമയത്ത് ഒരു ജീവിത പങ്കാളിയെ കിട്ടാൻ തീർച്ചയായും ബുദ്ധിമുട്ട് തന്നെയാണ്